എൻ്റെ കൈയിൽ ഒരു ഐ ഫോണുണ്ട് ഐ ഫോണാണെങ്കില് എടുത്തിട്ട് നല്ല റെയിറ്റുണ്ട് ഫോണിന് ഫോണിൻ്റെ കൂടെ കമ്പനി ചാർജറ് കൊടുക്കുന്നില്ല അതുപോലെ ചാർജറ് പുറത്തു നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് വരും പിന്നെ അതേപോലെതന്നെ അതിൻ്റെ ഡിസ്പ്ലേയ്ക്കടക്കം ഒരു മങ്ങലോ അതേപോലെ ചാർജിനു കുത്തിയിട്ടു കഴിഞ്ഞാൽ ചാർജ് കേറാതാവുകയും ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് കഴിയാണ്ട് ഒരു ശതമാനം പോലും കേറാത്ത രീതിക്കാവുന്നുണ്ട് ചാർജ് അതേപോലെതന്നെ നെറ്റ് ഓണാക്കുമ്പോൾ പെട്ടന്ന് ചാർജ് ഇറങ്ങിപോവുക ഓട്ടോമാറ്റിക് സ്വിച്ച് ഓഫാകുക ഫോണ് ഫോണ് വല്ലാണ്ട് ഹീറ്റിങ്ങാവുന്നുണ്ട് ഇടയ്ക്കു ഹീറ്റാവുന്ന സമയം നമ്മളെ കയ്യിലൊന്നും പിടിക്കാത്ത രീതിക്കാണ് അതേപോലെതന്നെ വേറൊരു ചാർജറും ഇതിനു സപ്പോട്ടാവുന്നതല്ല അതുപോലെ നമ്മൾ ആ ചാർജറ് കൂടെ കൊണ്ടുനടക്കുന്നതും വല്ലാത്ത ഇടങ്ങാറാണ് അതിൻ്റെ ചാർജർ വേറെ ഫോണിൻ്റെയൊന്നും സപ്പോർട്ടല്ല പിന്നെ വാട്ട്സ് കുറവാണ് ചാർജറിന് പിന്നെ അതെപോലെ നമുക്ക് ഇൻസ്റ്റഗ്രാം അങ്ങനത്തെയൊന്നും സപ്പോട്ടാവുന്നില്ല വല്ലാത്ത പ്രോബ്ളമാണ് ഫോണിന് പിന്നെ നെറ്റ്വർക്കിൻ്റെ കംപ്ലൈൻറ്റുണ്ട് ഫോണിന് സപ്പോട്ടാവില്ല അതുപോലെ ഡിസ്പ്ലേയ്ക്ക് കംപ്ലൈൻറ്റുണ്ട്